പത്ത് ആറേ രണ്ടായിരത്തി പതിനൊന്ന് അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരം മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത് പത്ത് രണ്ടായിരത്തി മൂന്ന്